ഇന്നത്തെ കാലത്ത് നമ്മള് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ ആണ് ഫേസ്ബുക്ക് പിന്നീട് വാട്സാപ്പ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയവയൊക്കെ ഏതൊരു കാര്യം ഉപയോഗിച്ചാലും ഗുണങ്ങളും അതിലുപരി തന്നെ ദോഷങ്ങളും ഉണ്ട് ഇപ്പോള് എന്തു കാര്യങ്ങൾ എടുത്താലും അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നമ്മള് മനസ്സിലാക്കണം ഇപ്പോള് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കൂടി വരുംതോറും എന്താണ് ഇപ്പോള് നമ്മളിപ്പോള് ഒരാള് ചെയ്യുന്ന വർക്ക് ഇപ്പോള് ആൾക്കാരുടെ ജോലിയുടെ ഇത് കുറച്ചുകൊണ്ട് ഇപ്പോള് കൂടുതലും കമ്പ്യൂട്ടറൈസ് ആയി എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളും കമ്പ്യൂട്ടർവൽക്കരിച്ചു അപ്പോള് കൂടുതലും ആൾക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ കഴിഞ്ഞു പിന്നീട് എന്താണ് ഗൂഗിൾ പേ വന്നതോടുകൂടി തന്നെ പണ്ടുകാലത്തൊക്കെ നമ്മള് കരണ്ട് ബില്ല് ആയാലും പിന്നെ സാധനങ്ങളുടെ ബില്ല് ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ക്യാഷ് ക്യാഷ് കൊടുക്കുക സാധനം വാങ്ങിക്കുകയെന്ന രീതിയിലായിരുന്നു പണ്ട് കടയിൽ പോകുന്നത് സാധനം വാങ്ങിക്കുന്നതൊക്കെ പക്ഷേ ഗുഗിൾ പേയുടെ കടന്നു വരവോടു കൂടി നമുക്ക് എന്താണ് കാഷ് കൊടുത്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് ക്യാഷ് പേ ചെയ്യാൻ കഴിയും അതൊരു നല്ല അഡ്വാൻറ്റെജായിട്ട് തന്നെ പറയാം അതിലുപരി എന്താണ് അഡ്വാൻറ്റെജുള്ളത് പോലെ തന്നെ ഗൂഗിൾ പേക്ക് ഡിസ്അഡ്വാൻറ്റെജുമുണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ചില സാഹചര്യങ്ങളിൽ എല്ലാ സാഹചര്യങ്ങളുടെ കാര്യം പറയുന്നില്ല ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള പൈസ മിസ്സാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫേസ്ബുക്കിൻ്റെ അമിത ഉപയോഗം ഫേസ്ബുക്ക് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം അപ്പോള് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ അമിത ഉപയോഗം ഓവർ അഡിക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ എന്താ അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഹാക്കെഴ്സ് അറ്റാക്ക് ചെയ്യാനും ഒക്കെ ചാൻസുണ്ട് മിസ്യൂസ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചാല് അതിന് നല്ല അഡ്വാൻറ്റേജസാണുള്ളത് അത് നമുക്ക് പല പല കാര്യങ്ങൾ അറിയാനും പല എവിടെ നടക്കുന്ന കാര്യങ്ങളായാലും നമുക്ക് നല്ല രീതിയിലറിയാനും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് സാധിക്കും പിന്നീട് നമ്മള് ഗൂഗിൾ പേയുടെ ഒരു അഡ്വാൻറ്റേജായിട്ട് പറയുന്നത് നമ്മളെ കരണ്ട് ബില്ല് ഫോൺ ബില്ല് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത് ജീ പേ വഴി ആയിരിക്കും പിന്നെ തന്നെ അതു കൂടാതെ തന്നെ ഫുഡിൻ്റെ കാര്യത്തില് ഇപ്പോൾ നമ്മളൊരു റസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് പോകുന്നില്ല വീട്ടിലിരുന്നു ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു സാധനം വന്നു ക്യാഷ് ഓൺ ഡെലിവറി നടത്താൻ നമ്മളിപ്പോള് വീട്ടിൽ ഇല്ല അപ്പോള് ക്യാഷ് ഓൺ ഡെലിവറി നടത്താൻ നമ്മള് വീട്ടിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിൽ എത്താൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീട്ടിലെത്തിക്കാൻ പറയും അപ്പോള് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നടത്താൻ നിവർത്തിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ നമ്മള് എന്തു ചെയ്യും നമ്മള് ജി പേ ചെയ്യും ജി പേ ചെയ്യാനുള്ള അക്കൗണ്ടില് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജി പേ ചെയ്യാൻ കഴിയും അപ്പോള് ഇവിടെ ഏത് സ്ഥലത്തുനിന്നുകൊണ്ട് നമ്മളിപ്പോള് ഓർഡർ ചെയ്താലും നമ്മുടെ വീട്ടില് സാധനം വരികയും ചെയ്യും നമുക്ക് ജി പേ ചെയ്ത് ക്യാഷ് കൊടുക്കുകയും ചെയ്യാൻ പറ്റും അങ്ങനെ എന്താണ് നല്ലെ ഇപ്പോള് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കാരണം നമുക്ക് നല്ല കാര്യങ്ങളുമുണ്ട് ചീത്ത കാര്യങ്ങളുമുണ്ട് അഡ്വാൻറ്റേജുകള് ഡിസ്അഡ്വാൻറ്റേജുകളെ ക്കാട്ടിലും കൂടുതല് അഡ്വാൻറ്റേജുകളാണ് ഏതൊരാ ഒരാളെ സ്മാർട്ട് ഫോണിൻ്റെ ഏതൊരു ആപ്പുകള് നമ്മള് ഉപയോഗിച്ചുകഴിഞ്ഞാല് എന്താ മിസ്യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് നമുക്കത് ദോഷത്തെക്കാൾ ഏറെ ഗുണങ്ങള് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്